ഞാന് ഒന്ന് രണ്ട് പേരോക്കെ നീന്തല് പഠിപ്പിച്ചിട്ടുണ്ട് കാരണമെന്ന് വച്ച് കഴിഞ്ഞാല് അവർക്ക് തീരെ നീന്തലറിയാത്തൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടുള്ളോരു പുഴയിലാണ് കൊണ്ടുപോയിട്ട് നീന്തല് പഠിപ്പിച്ചത് അപ്പം എങ്ങനെയാന്ന് വച്ചുകഴിഞ്ഞാല് ഞാന് കൈയിങ്ങനെ ഇട്ടിട്ട് അതായത് നമ്മളവരെ പണ്ടൊക്കെ എടുക്ക എടുക്കുന്ന രീതിയില്ലേ അതായത് നമ്മള് ചെറിയ കുട്ടികളെയൊക്കെ എടുക്കുന്നപോലെ കൈ നേരെ ഇങ്ങനെ വച്ചിട്ട് അവരോട് മലർന്ന് കിടക്കാൻ പറഞ്ഞിട്ട് അവരോട് കാലും കൈയുമിട്ടടിച്ച് നീന്താനാണ് ഞാൻ കൂടുതലായിട്ടും പഠിപ്പിച്ചത് അപ്പം അങ്ങനെ നീന്തുമ്പോൾ അവർക്ക് ന്നു പറഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് ഞാൻ ചിലപ്പം കയ്യെടുക്കമ്പം മുങ്ങിപ്പോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചിലർക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്ന കണ്ടിട്ട് പറഞ്ഞ് എനിക്കു മുങ്ങിപ്പോവും എനിക്ക് പറ്റില്ല എനിക്ക് വെള്ളം പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് അതിൽ നിന്ന് പിന്മാറുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരാള് ഞാനങ്ങനെ പഠിപ്പിച്ചുകഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പിന്നെ നമ്മള് കൂടുതലായിട്ടും പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഈ വണ്ടീൻ്റെ ടയറിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് അതിനകത്ത് പിടിച്ചിട്ട് കാലും കയ്യുമിട്ടടിക്കുക അല്ലങ്കില് അതിനകത്ത് പിടിച്ച്നിന്നിട്ട് നമ്മള് കാലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മള് മുങ്ങിപ്പോവാണ്ട് നമ്മള് മുന്നോട്ട് മുന്നോട്ട് നീങ്ങും അങ്ങനേയും നമ്മള് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒന്നുരണ്ടാൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ലാണ്ട്